ആ ഇത് ആരതിയല്ലേ ആ ഞാന് എന്റെയൊരു ഫ്രണ്ട് നമ്പര് തന്നിട്ട് വിളിക്കുകയാണ് ഒരു പ്രോപ്പര്ട്ടി വാങ്ങാന് വേണ്ടിയിട്ടായിരുന്നു

ആ ആ അപ്പം ആ ബെഡ്റൂംസിന്റെയും ഇതിന്റെയുമൊക്കെ കാര്യങ്ങളൊന്ന് പറയുമോ

ഓ അപ്പോള് വെള്ളവും കാര്യങ്ങളുമൊക്കെ അതിന്റെയൊക്കെ

ആ അപ്പോള് ഈ ആ വീട് വില്ക്കാതെ വാടകയ്ക്ക് കൊടുക്കുന്നതുണ്ടോ

ആ അപ്പം മൊത്തം എത്ര സെൻറ്റുണ്ടെന്ന്

പിന്നെ വഴി സൗകര്യങ്ങളുമൊക്കെ എങ്ങനെയാണ്

ഓ ഹോസ്പിറ്റലുമൊക്കെ അടുത്തുതന്നെയുണ്ടാകുമോ

ആ ഞാനും എന്റെ അച്ഛനുമുണ്ട് ഇപ്പം ഞങ്ങള് രണ്ട് പേരും ആ വേറെ ആ ആവശ്യങ്ങളെന്താണ് പിന്നെ സ്കൂളൊക്കെ അടുത്തുണ്ടാകുമോ സ്കൂളോ കോളേജോ

ആ ആണല്ലേ ആ ആണല്ലേ ഓക്കെ താങ്ക് യൂ എന്നാല് ഞാന് അറിയിക്കാം